ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എണ്ണമയമുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ സോപ്പോ അല്ലെങ്കിൽ പ്രില്ലോ യൂസ് ചെയ്യും നമ്മളിപ്പോൾ കൂടുതൽ എക്സോ അല്ലെങ്കിൽ പാത്രം കഴുകുന്നൊരു എക്സോയെന്നു പറയുന്നൊരു പച്ച സോപ്പുണ്ടല്ലോ അത് ബൗളിലും കിട്ടും ഒരു ചെറിയ സോപ്പായിട്ട് ഒരു പത്തുരൂപക്കുള്ള സോപ്പുകളും കിട്ടും ഞമ്മടെ ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും പത്ത് രൂപക്കുള്ള സോപ്പുകളാണ് പക്ഷേ എന്തുകൊണ്ടെന്നാൽ പാത്രത്തിലിപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ ആ വെള്ളമായാൽ ആ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു തീരും അപ്പോൾ കുറച്ച് അമ്പത് രൂപേൻ്റെയൊക്കെ റൗണ്ടുള്ളത് എക്സോ ഒക്കെ വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് തന്നെ പത്ത് രൂപയുടെ സോപ്പ് വാങ്ങി അത് രണ്ട് പീസാക്കിയിട്ട് ഒരു പീസ് ഉപയോഗിച്ചതിന് ശേഷം അടുത്ത പീസ് എടുത്ത് അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറ് പിന്നെ അതുപോലെ പ്രിൽ ഉപയോഗിക്കും ഇപ്പോൾ ഇപ്പോൾ കൂടുതൽ എല്ലാവിടെയും പ്രില്ലാണ് ഉപയോഗിക്കുന്നത് പ്രില്ലിനെന്നു വെച്ചാൽ എണ്ണ പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ വൃത്തിയാകും നല്ല വെട്ടിത്തിളങ്ങും പത്രങ്ങൾ അപ്പോൾ പ്രിൽ യൂസ് ചെയ്യും ഇപ്പോൾ പ്രിൽ എൻ്റെ വീട്ടിൽ എങ്ങനാ യൂസ് ചെയ്യുന്നത് പുറത്തു നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കുന്നരീതി പഠിച്ചിട്ട് അത് പ്രില്ലിൻ്റെ സാധനങ്ങളൊക്കെ പ്രില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാമഗ്രികൾ വേണം അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽത്തന്നെ അത് നോക്കി അത് ഒരു കടലാസുണ്ട് ഒരു പേപ്പറുണ്ട് അതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ട് ആ പേപ്പർ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് വീട്ടിൽത്തന്നെ പ്രില്ലുണ്ടാക്കും അപ്പോൾ അതൊരു നാലു നാലു ലിറ്ററോളം വരും അപ്പോൾ നാല് നാലു ലിറ്റർ പറഞ്ഞാൽ നാലു കുപ്പി അപ്പോൾ നാലു കുപ്പി ഒരു കുപ്പി എടുത്ത് യൂസ് ചെയ്ത് അത് കുറേ ദിവസം കുറേ മാസങ്ങളെത്തും അങ്ങനെയാണ് യൂസ് ചെയ്യാറ് സോപ്പും നല്ലതാണ് പ്രില്ലും പക്ഷെ കൈകൾക്ക് കൂടുതൽ ഒരു നല്ലതെന്ന് പറയുന്നത് പ്രില്ല് തന്നെയാണ് കൈ നാശമാകില്ല സോപ്പുപയോഗിക്കുമ്പോൾ ചിലവർക്ക് അലർജി ഉണ്ടാകും അല്ലെങ്കിൽ കയ്യിൽ നമ്മുടെ സോഫ്റ്റ്നസ് പോകും അപ്പോൾ പ്രില്ലുപയോഗിക്കുമ്പോൾ കൈക്ക് സോഫ്റ്റ്നസ് ഉണ്ടാകും അത്പോലെ കൈകൾക്കൊന്നും കേടുപാട് വരില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ പ്രില്ലുപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത്